നമുക്കെല്ലാവർക്കും അറിയണപോലെ തന്നെ നമ്മളുടെ എറണാകുളം ജില്ലാന്ന് പറയുന്നതൊരു മതസൗഹൃദ ജില്ലയാണ് എല്ലാത്തരം ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം കൊണ്ട് തന്നെ നല്ല രീതിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ജില്ല കൂടിയാണ് ഹിന്ദുക്കളും മുസ്ലിംസ്സും ക്രിസ്ത്യൻസ്സ് എല്ലാ മതവിഭാഗക്കാരും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ട് പോവേം ചെയ്യുന്നുണ്ട് ഹിന്ദുക്കളിൽ പറയാണെങ്കിൽ പ്രധാനമായും ആചരിക്കുന്നത് ധനു മാസത്തിലെ തിരുവാതിര പ്രധാനമായിട്ട് ആചരിക്കുന്നൊരു നോമ്പാണ് പിന്നെ മകയിരം നോമ്പ് അതുപോലെ തന്നെ മരിച്ചോയർക്ക് വേണ്ടി കർക്കിട മാസത്തിലെ ഒരു വാവ് ബലി നടത്താറുണ്ട് പിന്നെ പറയുന്നത് ക്രിസ്ത്യൻസിനെ ക്കുറിച്ച് പറയാനാണെങ്കിൽ അവരുടെ ഏറ്റോം പ്രധാനപ്പെട്ട ആഘോഷങ്ങൾലൊന്നാണ് ക്രിസ്മസ്സ് ഈസ്റ്റ്റ് എന്നിവയൊക്കെ അവർക്ക് അത് നല്ല രീതിക്ക് ആഘോഷിക്കാറുണ്ട് പിന്നെ അതിനനുസൃതമായി അവർ അവരുടെതായ നല്ല രീതിക്ക് നോമ്പും എടുക്കാറുണ്ട് പിന്നെ നമ്മൾ മുസ്ലിംസിൻ്റെ കാര്യം പറയാണെങ്കിൽ അവരും അവരുടെ ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ അങ്ങനെ അവരുടോരോ ഈദ് അങ്ങനത്തെ ഓരോ പരിപാടികൾക്കും അവരും അവരുടെതായ ആചാരങ്ങൾ നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ട് പോവേം ആഘോഷിക്ക്യേം ചെയ്യുന്നവരന്നെയാണ് പിന്നെ അതിന്റെതായ പവിത്രതയോട്കൂടി തന്നെയാണ് അവർ ആഘോഷിക്കാറുള്ളതും പിന്നെ എല്ലാ മതങ്ങളും അവരുടെ മതത്തോട് സംബന്ധിച്ചെടുത്ത് പഠനകാ ക്ലാസ്സ്കളും കലാപരമായ പരിപാടികൾളും സംഘടിപ്പിക്കാറുണ്ട് എല്ലാവർക്കും ക്രിസ്ത്യാനാണെങ്കിലും അവരുടെ മതത്തിലുള്ള ക്യാറ്റീസം അങ്ങനത്തോരോ പഠിയ്ക്കുന്ന കുറെ കാര്യങ്ങളൊക്കെയുണ്ട് അതുപോലെ തന്നെ ഈ മുസ്ലിംസിനുവുണ്ട് ഇവരുടെ ഖുറാൻ അതുപോലെ അറബി പഠിപ്പിക്കൽ പഠിക്കൽ അങ്ങനത്തെ ഓരോ ആചാരങ്ങളും അനിഷ്ഠാനങ്ങളും എല്ലാ മതക്കാർക്കുവുണ്ട് അവരതും നല്ല രീതിയ്ക്കന്നെ നല്ല രീതിക്ക് കലാപരമായി പരിപാടികളവതരിപ്പിക്യേം അതുപോലെ നല്ല രീതിക്ക് ആ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ട് പോവേം എല്ലാം ചെയ്യുന്നു പിന്നെ പറയാനാണങ്കിൽ ഈ വിദേശീയർക്ക് വിദേശിയർക്ക് നമ്മൾ നമ്മുളുടെ കലകൾ കലകളും പുസ്തകങ്ങളക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നതും അതവർക്കത് കൂടുതലറിയാനായിട്ടുള്ള ഒരൂപാടാഗ്രഹങ്ങളുണ്ടാവും നമ്മൾ നമ്മളുടെ പാരമ്പര്യത്തെക്കുറിച്ച് വിവരിക്കുന്നത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം അവർക്കറിയാനൊരുപാട് ആഗ്രഹിക്കുന്നു കെ വിദേശികൾക്ക് കേരളമെന്ന് പറയുമ്പത്തന്നെ ഭയങ്കര ഒരിതാണ് കാരണം അത്രയും ബഹുമാനത്തോട് കൂടി തന്നെയാണവർ ഈ കേരളമെന്ന് പറഞ്ഞ നമ്മുടെ കൊച്ച് രാജ്യത്തെ കാണുന്നത് കേരളത്തിൽ വിദേശികൾ കേരളത്തിലേക്ക് വരുമ്പം തന്നെ അവർക്ക് നമ്മളുടെ ആചാരങ്ങളും അത്പോലെ തന്നെ കലകളും എല്ലാം അവർ ഭയങ്കര അത്ഭുത കാഴ്ചയോട് കൂടിയാണ് കാത്തിരുന്നു കാണണതും അപ്പം അവർ അതുപോലെ തന്നെ നമ്മളുടെ ഭക്ഷണം കേരളീയരുടെ ഭക്ഷണം അതുപോലെ ക്ലാസ്സിക്കൽ ഡാൻസ്കൾ പരിപാടികൾ ഇതൊക്കെ അവർ ഭയങ്കരധികം ആഘോഷിച്ച് ആസ്വദിച്ചിരുന്നു കണ്വേം ചെയ്യാറുണ്ട് ഇങ്ങനൊക്കെയാണ് നമ്മളുടെ എറണാകുളം ജില്ലേലെ പ്രധാന സാംസ്കാരിക സാമൂഹ്യ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ഭാര്യേ മറ്റേ ഭാഷ ഭാഷയുടെ കാര്യങ്ങളിലാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ് ഭാഷയെല്ലാവരും നല്ല രീതിക്ക് അവരുടേതായ ഓരോ ഭാഷകളും ഉപയോഗിക്കുന്നണ്ട് അതുപോലെ മതം എല്ലാ മതം എല്ലാ മതങ്ങൾക്കും അവരുടേതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളെല്ലാമുണ്ട് അതുപൊല തന്നെ ആർക്കും അങ്ങനെ തർക്കങ്ങളോ അങ്ങനെയൊന്നുവില്ല എല്ലാവരും ഇപ്പം ഹിന്ദുക്കളാണെങ്കിൽ ക്രിസ്ത്യൻസിൻ്റെ പരിപാടികളിലും പങ്കെടുക്കും ക്രിസ്ത്യൻസ് ഹിന്ദുസിൻ്റെയ്ലും പങ്കെടുക്കും അങ്ങനെ എല്ലാവരും സൗഹൃദം സൗഹൃദത്തോട് കൂടിത്തന്നെയാണ് ഈ എല്ലാ കാര്യങ്ങളിലും പങ്കെടുത്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം പിന്നാഘോഷങ്ങളുടെ ഒരു നാടെന്ന് കൂടി നമുക്ക് പറയാം എറണാകുളം ജില്ലേനെ